ഹലോ ഇത് ട്രാവൽ ഏജൻസിയല്ലേ അതേ ഞങ്ങൾക്കേ പത്തു പേർക്ക് പോകാനായിട്ടുള്ളൊരു ട്രാവലിങ്ങ് വേണം നാലും ആറും നാലുവായിട്ട് അപ്പം അത് ഞങ്ങൾക്ക് എവിടെ എവിടെയാന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പം ബീച്ചി വരെയാണ് പോവേണ്ടത് ഞങ്ങൾ തണ്ണീർമുഖത്തുന്നാണ് വിളിക്കുന്നത് അപ്പയെത്രയായിരിക്കും ചാർജ്ന്നൊന്ന് പറയാവോ നാല് പേർക്കൂടെ മൂവായിരവോ ഓ അപ്പോൾ ആറ് പേരുടേത് കൂടമ്പളോ അയ്യായിരം അപ്പം എങ്ങനെയായിരിക്കും അതിന്റെ ഈ സൗകര്യങ്ങളൊക്കെ അതും നല്ല അടച്ചുറപ്പക്കെയുള്ളതാണോ നല്ല രീതീലിരുന്ന് പോകാമോ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ശരി ശരി ശരി ശരി എങ്കിൽ ഞങ്ങൾ ഇന്നൊരു ആ ഓ ഒരാറ് മണിയൊക്കെ ആകുമ്പോഴ്ത്തേക്ക് ഞങ്ങൾ റെഡിയായി വിളിക്കാം കേട്ടോ ഓക്കെ ടാങ്ക് യൂ